എൻ്റെ സമീപത്താണെങ്കിൽ ആർട്സ് സപ്ലൈ സ്റ്റോറുണ്ട് ഞാനാണെങ്കിൽ എന്താ എനിക്കാണെങ്കിൽ കര കൗശലത്തോടൊക്കെ ഭയങ്കര താല്പര്യമാണ് എനിക്ക് കൂടുതലും താല്പര്യമുള്ളത് പെയിൻറ്റിങ്സാണ് അപ്പം ഞാനാണെങ്കിൽ കൂടുതലായിട്ടും ഇവിടെ അടുത്തൊരു പെയിൻറ്റിങ് സ്റ്റോറുണ്ട് അവിടെയൊക്കെ ഞാൻ പോവാറുണ്ട് അവർ ചെയ്ത പെയിൻറ്റിഗ്സൊക്കെ കാണാറുണ്ട് അല്ലെങ്കിൽ അതിനെ കുറിച്ചൊക്കെ ഞാൻ കൂടുതലായിട്ട് എങ്ങനെയൊക്കെയാണ് ചെയ്തത് ഏത് രീതിയിലാണ് ചെയ്തെന്നൊക്കെ ചോദിക്കാറുണ്ട് കളർ മിക്സിങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ ഒരു നിങ്ങൾ ചെയ്ത രീതി എങ്ങനെയാണ് എന്ത് ഏതൊക്കെ രീതിയിലൂടെയാണ് നിങ്ങളീ പെയിൻറ്റിങ് ചെയ്തതെന്നൊക്കെ ഞാനവരോട് ചോദിക്കാറുണ്ട് ചോദിച്ച് അതിനെക്കുറിച്ചൊക്കെ അറിയാറുണ്ട് പിന്നെ കളർ കളർ കോമ്പിനേഷൻസ് ഒക്കെ നിങ്ങളെങ്ങനെയാണ് തിരഞ്ഞെടുത്തത് നിങ്ങൾക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ എടുക്കാനായിട്ടുള്ള റീസൺ എന്താണ് അല്ലെങ്കിൽ ഈ ഒരു ചിത്രം വരക്കാനുള്ള റീസൺ എന്താണ് എന്നൊക്കെ ഞാൻ അവരോട് ചോദിക്കാറുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതലായിട്ട് അറിയാറുണ്ട് അവരൊക്കെ ചോദിച്ചറിഞ്ഞു ഞാനാണെങ്കിൽ ഡ്രോയിങ്സ് ഒക്കെ ചെയ്യാറുണ്ട് ഞാനപ്പം അതിനുവേണ്ടിയിട്ടാണെങ്കിൽ കൂടുതൽ സമയം ചിലവാക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ എടക്കൊക്കെ അത് പോയി കാണാറുണ്ട് അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതുതായിട്ട് വരയ്ക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അവരെന്നെ എന്നെ ആണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യും പിന്നെ അതുപോലെ ആണ് വന്നു കാണു അല്ലെങ്കിൽ വന്നു വാങ്ങു എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട് ഞാനതൊക്കെ പോയി കണ്ട് അവരോട് ആ കാര്യങ്ങളൊക്കെ ഡീറ്റൈലായിട്ട് ചോദിക്കാറൊക്കെ ഉണ്ട്